അ ഹലൊ ശ്രീപ്രഭാ മാമല്ലെ കരിയർ കൗൺസലിങ്ങ് ചെയ്യുന്ന ആ ഓക്കെ ഗുഡ് മോണിങ് മാം ഞാൻ ടെൻന്ത് പാസ്സായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പം റിസൽട്ടൊക്കെ വന്നു ആ ടെൻന്ത് റിസൽട്ടൊക്കെ വന്നു അത്യാവശ്യം മാർക്കൊക്കെയുണ്ട് അപ്പം എനിക്ക് സ്പേയ്സ് റിസേർച്ചിൽ ആണെനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടാരുന്നു വിളിച്ചത് അപ്പം നമ്മൾ ടെൻന്ത് കഴിഞ്ഞിട്ട് ഏത് സബ്ജക്റ്റ് ആയിരിക്കണം എടുക്കേണ്ടത് അതിനൊക്കെ പറ്റിയ ഒരു ഐഡ്യ തരാമോ മാം ഓക്കെ ഓക്കെ അ അതെ അതെ അ ഓക്കെ ഓക്കെ അ അ ആ ഓക്കെ ഹ ഹ ഹ

ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഹ ഹ ഹ ആ ഓക്കെ മാമ് അപ്പം നമ്മൾ ഡിഗ്രി ആ ഡിഗ്രിക്കൊക്കെ എത്ര പേഴ്സൻറ്റേജ് ആയിരിക്കണം മാർക്ക് വേണ്ടത് ഇതിലോട്ട് അഡ്മിഷൻ കിട്ടാനായിട്ട് അതൊ ഇ ഒ ലൈക് ആ ഹൊ ഓക്കെ

ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അ ഓക്കെ ആ അ അ അ സാലറി പാക്കേജ് അത്യാവശ്യം നല്ലതാണ് അല്ലെ മാം ഇതിൽ ആ ഹാ ഹാ ഹാ

ഓ റിട്ടയർമെൻ്റിന്റെ അല്ലെ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് അറിയാനായിട്ടായിരുന്നു മാം വിളിച്ചത് ഒക്കെ ഓക്കെ താങ്ക് യു മാം ആ ഓക്കെ താങ്ക് യു സോ മച്ച് മാം ആ താങ്ക് യു ബൈ